ആ ഇത് ആ ലോട്ടറിയുടെ ആളല്ലെ ആ ഞാൻ ഇപ്പം ഇവിടെ വന്നതേ ഉള്ളു നാട്ടിലില്ലായിരുന്നു ഗൾഫിലായിരുന്നു അപ്പം എനിക്ക് ഈ ലോട്ടറി ബിസിനസ്സ് ഇവിടെ വന്നു ചെയ്യണം എന്നുണ്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യണമല്ലോ അപ്പം അങ്ങനെ എന്തായാലും ചെയ്യാൻ വേണ്ടിയേ ലോട്ടറി ബിസിനസ്സ് ചെയ്യണം എന്നുണ്ട് അതിനെ കുറിച്ചൊന്ന് പറയാമോ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ആ ആ ആ ആ കിട്ടുമല്ലേ ആ

അപ്പോൾ അപ്പോഴേ അപ്പം നമുക്കിതിൻ്റെ സമ്മാനത്തിന് ആ അടിച്ചാൽ നമുക്കതിൻ്റെ കമ്മീഷനൊക്കെ കിട്ടുമോ സമ്മാനത്തിൻ്റെ ആ ആ ആ ആ ആ ആ

ആ ആ ആ ആ ആ അപ്പോൾ ഇത് എവിടെ നിന്നാണിത് എടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയെന്ന് ആ ഇത് ഇത് ഏറ്റവും കൂടുതൽ വിൽപ്പന അപ്പം നിങ്ങൾ നിങ്ങൾ നിങ്ങൾ നിങ്ങൾ വലിയ കമ്മീഷൻ എടുക്കത്തില്ലായിരിക്കുമല്ലോ അല്ലെ ചെറിയൊരു കമ്മീഷനെ എടുക്കത്തുള്ളു അല്ലെ ആ ഇത് ആ എങ്ങനെയാണ് എങ്ങനെയാണ് ഡെയ്ലി ഉണ്ടല്ലെ ഇതിൻ്റെ ആ ഓരോ വേറെ അന്യസംസ്ഥാന ലോട്ടറി അങ്ങനെ സൂപ്പർ ലോട്ടോ പോലെയുള്ള

അല്ലാതെ ബൂട്ടാൻ അങ്ങനെ അതൊന്നുയില്ലല്ലേ ഈ ഒറ്റ നമ്പർ ലോട്ടറി അതൊന്നും ഇല്ല അല്ലേ

ഇല്ല ഞാനിപ്പോൾ നാട്ടിലുണ്ട് അപ്പം ഞാൻ ആ എവിടെയായിട്ടാണ് സ്ഥലം ട്രിവാൻട്രത്ത് ആ അപ്പം അപ്പോൾ ശരി എന്നാൽ ഞാൻ അപ്പം നിങ്ങളെ സമീപിച്ചോളാം ഓക്കെ ഓക്കെ ശരി എന്നാൽ ഓക്കെ ഓക്കെ